മൃഗവളർത്തൽ എന്ന് പറയുമ്പോള് മൃഗങ്ങൾ ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കൂടുതൽ സ്ഥലം വേണം എന്നാലേ വിശാലമായിട്ട് മൃഗങ്ങളെ വളർത്താനും അവരെ അവ അവർക്ക് നടക്കാനും ഓടാനും നല്ല രീതിയിൽ വളർത്താൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് സ്ഥലപരിമിതിയുള്ളവര് അതിനെ ഓരോ കൂട്ടിലടച്ചപോലെ വളർത്തിയാല് അതിൻ്റെ യഥാർത്ഥ വളർച്ച ആകുകേല അതിൻ്റെ ആരോഗ്യപരമായ ഉല്പന്നങ്ങള് നമുക്ക് കിട്ടത്തൂമില്ലാ വസ്തു ശരിക്കും സ്ഥലത്തോടുകൂടി വളർത്തുന്നവരാണെങ്കിൽ അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് പശുവിനെ വളർത്തുമ്പോള് അതിൻ്റെ ചാണകംകൊണ്ട് മറ്റു കൃഷിക്ക് രാസവളമൊന്നും ഇടാതെ ആ ചാണകവും ഗോമൂത്രവും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയില് മറ്റ് കൃഷികളും നടത്താം അപ്പോള് അതിൽനിന്ന് കൂടുതല് വരുമാനവും ഉണ്ടാക്കാം പിന്നെ കൂടുതൽ ഇതുള്ളവർക്ക് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കില് കോഴി ആട് മീന് അങ്ങനെ പലതും വളർത്താവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതൊരു വരുമാനമാർഗത്തിലുപരി മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിനും പിന്നെ ഗുണമേന്മ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നമ്മള് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നത് ആകുമ്പോള് അതിനകത്ത് മറ്റു വിഷാംശങ്ങളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ പുല്ലുംകൊടുത്തു വീട്ടിലെ ഭക്ഷണം കൊടുത്തൊക്കെ നല്ലരീതിയില് വളർത്തുന്ന പശുവിൻ്റെ നല്ല പാലും നല്ല മൊ കോഴിയുടെയും താറാവിൻ്റെ മുട്ടകള് മീനുകളും എല്ലാം നമ്മള്ക്ക് നല്ല ഗുണമേന്മയോടെ കഴിക്കാനും മറ്റുള്ളവർക്ക് വില്പന നടത്താനും ഒക്കെ പറ്റുന്നതാണ് അപ്പോള് എനിക്ക് സ്ഥലപരിമിതിയുണ്ട് അത് കാരണം എനിക്ക് ഇതൊക്കെ താൽപര്യമുള്ള വിഷയമാണ് പക്ഷെ സ്ഥലപരിമിതിയുള്ളതുകൊണ്ട് ഇതൊന്നും നടക്കുകേല നടക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പോള് ചിന്തിച്ചിട്ടും കാര്യമില്ല